ആ പെറ്റ് ഗ്രൂമറായിരുന്നു ആരായിരുന്നു

ആ ഏതാ പപ്പി ഏതായിരുന്നു ലാബാ എത്ര വയസ്സായി രണ്ട് വയസ്സ് അല്ലേ ഓക്കെ ഓക്കെ അത് ഇങ്ങനെ കടിക്കുന്ന അങ്ങനത്തെ വല്ല എന്തെങ്കിലും അഗ്രസ്സീവായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ പട്ടിക്ക് ഇല്ലല്ലേ രണ്ടെണ്ണം ഉണ്ടല്ലേ രണ്ടിനേയും കൂടെ ചെയ്യിക്കാനാണോ ആ രണ്ടിനും ഒരേ പ്രായം തന്നെയാണോ അതോ വേറെ വേറെ പ്രായമാണോ രണ്ട് മാസത്തിന് വ്യത്യാസം ഉള്ളൂ അല്ലേ അപ്പോൾ കടിക്കുന്ന ടൈപ്പാണെങ്കിൽ നമ്മൾ വീട്ടിലൊക്കെ വന്ന് ചെയ്യുകയാണെങ്കിൽ കുറച്ചൂടെ ബെറ്റർ കാരണം നിങ്ങൾക്കത് നിങ്ങളെ കടിക്കുകയോ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ

ആ ഓക്കേ ആ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ ചെയ്യും അപ്പോൾ അതിനുള്ള ഒരു എക്സ്പെൻസ് കൂടെ നിങ്ങൾ തന്നാൽ മതി വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല ആ അപ്പോൾ ഞങ്ങൾ വേണമെങ്കിൽ വീട്ടിൽ വന്നിട്ട് ചെയ്ത് തരും അപ്പോൾ നമ്മൾ എങ്ങനെയാ ചെയ് ഏയ് ഇല്ലില്ല ഒരു പ്രശ്നവുമില്ല നമ്മൾ കറക്റ്റായിട്ടുതന്നെ ചെയ്തുതരാം അതായത് നമ്മളെ ഒരു ഒമിനി ഉണ്ട് നമുക്ക് അഥവാ വീട്ടീന്ന് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മളാ ഒമിനിയിൽ കയറ്റിയിട്ട് നമ്മളുടെ അതായത് നമ്മളുടെ ഷോപ്പിലേക്ക് കൊണ്ടുവരും അവിടുന്ന് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തുതരും എങ്ങനെ ആ വീട്ടില് വന്നിട്ട് ഞങ്ങള് എടുത്തുകൊണ്ട് പൊയ്ക്കോളും കുഴപ്പമൊന്നുമില്ല അത് എല്ലാം കഴിഞ്ഞ്കഴിഞ്ഞിട്ട് വീട്ടിൽത്തന്നെ കൊണ്ട് വിടും ഇല്ല നമുക്ക് ഒരു ദിവസമൊന്നും ആവില്ല നമുക്ക് കൊണ്ടുപോയിക്കഴിഞ്ഞ് നമുക്ക് അന്ന് തന്നെ റെഡിയാക്കി ഒരു രാവിലെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം ആവുമ്പോഴേക്ക് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവിടും ദിവസമൊന്നും ആവില്ല ആ ചെയ്ത് വിടും അത് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല നമ്മൾ ഫുൾ കഴുകി മേല് ഫുള്ള് വാഷ് ചെയ്ത് അപ്പോൾ അതിന് ചെള്ളും കാര്യങ്ങളൊക്കെ കടിച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതിനെയൊക്കെ കളയാൻ വേണ്ടിയിട്ടുള്ള കെമിക്കലും കാര്യങ്ങളുമൊക്കെ നമ്മൾ ദേഹത്തു ആക്കിയിട്ട് നമ്മള് ഫുള്ള് വാഷ് ചെയ്യും പിന്നെ അതിന്റെ നെയിലും കാര്യങ്ങളുമൊക്കെ വെട്ടും വേണ്ട വേണ്ട അതൊക്കെ നമ്മളെ കൈയ്യിലുണ്ട് അതൊന്നും പേടിക്കേണ്ട എല്ലാം ഞങ്ങൾ തന്നെയാണ് എടുക്കുക അപ്പോൾ ഇതെടുത്ത് നമ്മളെല്ലാം ചെയ്തുകഴിഞ്ഞിട്ട് നിങ്ങളൊരു പെയ്മെന്റ് മാത്രം ചെയ്താൽ മതി സ്റ്റാർട്ടിങ്ങ് നമുക്ക് വരുന്നത് ഒരു അയ്യായിരം രൂപ തൊട്ടാണ് സ്റ്റാർട്ടിങ്ങ് വരുന്നത് ഒരു ഒരു പട്ടിക്ക് ആ കൊണ്ടുപോയി ചെയ്യുന്നതിന് അതിനാണെങ്കിലൊരു മൂവ്വായിരം രൂപ നമ്മള് ഇവിടെ വരെ വരണ്ടേ നിങ്ങള് ബേപ്പൂര് വരെ വരണ്ടേ നമ്മളവിടെ കോഴിക്കോട് സിറ്റിയിലാണ് നമ്മുടെ ഗ്രൂമുള്ളത് ആ അതെ അപ്പോൾ അങ്ങനെയാണുള്ളത് അപ്പോൾ അത്കൊണ്ട് സാറിന് ഏതാണോ താല്പര്യം അതുവേണമെങ്കിൽ പറഞ്ഞാൽ മതി

ഇല്ലില്ല ഇല്ല ഇല്ല ഒന്നും ഒരു കുഴപ്പവുമില്ല ഒരു കുഴപ്പവുമില്ല അതൊക്കെ നമുക്ക് സെറ്റാക്കാം അങ്ങനത്തൊരു വിഷയമേയില്ല സാറേ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അങ്ങോട്ട് വരാം പപ്പീനെ ഞാൻ നമുക്കവിടുന്ന് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവിടെ നിന്ന് ചെയ്യാം ഇല്ലെങ്കിൽ ആ ഓക്കേ ഓക്കേ അങ്ങനെയാണെങ്കിൽ ഞാൻ വൈകുന്നേരം വിളിക്കാം വരുമ്പോൾ ഞാൻ വിളിക്കാം സാറിനെ ഓക്കെ ഓക്കെ ഓക്കെ